കായിക വിനോദങ്ങൾ ഗ്രാമീണരെ ഏറെ നല്ല രീതിയിലാണ് ബാധിക്കുന്നത് മോശം വശം ഒന്നും പറയാനായിട്ട് ഇല്ല ഗ്രാമങ്ങളാണെങ്കിലും സിറ്റികളെ പോലെ തന്നെ അത്രയ്ക്ക് ഡെവലപ്ഡ് അല്ലെങ്കിലും എല്ലാ വീടുകളിലും അല്ലെങ്കിൽ അടുത്ത് അടുത്ത് ഒരു വീട് ഇടവിട്ടിടവിട്ട് അങ്ങനെ ഒരു വീട്ടിൽ ടിവി ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി ഇരുന്ന് കാണാവുന്ന രീതിയിൽ സ്പോർട്സ് അങ്ങനെയുള്ള ടിവിയിൽ കാണുന്നതാണെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാവരും നല്ല രീതി കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമായവർ വരെ അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സ്പോർട്സുകൾ കാണാൻ ശ്രമിക്കും നല്ല രീതിയിൽ തന്നെ കാണുകയും നല്ല രീതിയിൽ തന്നെ ആൾക്കാർ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒന്നാണ് കായിക വിനോദങ്ങൾ പല തരത്തിലുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും ചെയ്യാറുണ്ട് കുട്ടികളാണെങ്കിൽ തന്നെ കായിക വിനോദങ്ങളായ ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെ ഷട്ടിൽ എന്നിവയിൽ ഒഴിവ് സമയങ്ങളിലോ അല്ലെങ്കിൽ സ്കൂൾ ആവധി സമയങ്ങളിൽ അങ്ങനെയൊക്കെ ഏർപ്പെടാറുണ്ട് പ്രായമായവർക്ക് ആയാൽ തന്നെ ഷട്ടിൽ അതുപോലെ തന്നെ കാരംസ് ബോർഡ് ബോർഡ് ഐറ്റംസ് ആയിട്ടുള്ള ഗെയിമുകൾ അങ്ങനെ എല്ലാം ചെയ്യാൻ കായിക വിനോദങ്ങളായി ചെയ്യാൻ പ്രായമായവർ ശ്രമിക്കാറുണ്ട് പൊതുവെ ഓരോ ആൾക്കാർക്കും ഇപ്പോൾ അംഗവൈകല്യമുള്ള ആൾക്കാർ അവർക്ക് പറ്റിയ രീതിയിൽ ആ കായിക വിനോദങ്ങൾ നേരിട്ട് കളിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഫോണ് ഉപയോഗിച്ചു അല്ലെങ്കിൽ ആ ഒക്കുന്ന രീതിക്കൊക്കെ അങ്ങനെ എല്ലാ രീതിയിലും ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചു ഒക്കുന്ന രീതിയിൽ എല്ലാ കായിക വിനോദങ്ങൾ പഠിക്കുകയും പ്രാക്റ്റീസ് ചെയ്തു നല്ല രീതി നല്ല ഉയരങ്ങളിലെത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് ഗ്രാമങ്ങളിൽ തന്നെ പഠിച്ചു വളർന്ന് നല്ല രീതിയിൽ അവരവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലുള്ള സ്പോർട്സ് ചെയ്ത് ഭയങ്കര ഉന്നതിയിൽ എത്തി പലരും ഗ്രാമം ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ വേറെ ഗ്രാമങ്ങളും അങ്ങനെ പല പല ഗ്രാമങ്ങളിലായിട്ടുണ്ട് ഒക്കുന്ന പോലെ പഠിച്ചു ഒക്കുന്ന രീതിയിൽ ചെയ്തു നല്ല രീതിയിൽ എത്തി നല്ല നിലയിൽ എത്തി സമൂഹത്തിന് ഒരു മുന്നോടി ആയിട്ടുള്ള ആൾക്കാർ വരെയുണ്ട്